നമ്മുടെ നാട്ടില് പ്രധാനമായിട്ടുള്ള കൃഷി ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് നെല്ല് തെങ്ങ് വാഴ കുരുമുളക് അടയ്ക്ക അങ്ങനൊള്ളതക്കെയാണ് പിന്നെ ഉള്ളൊരു കൃഷിയെന്ന് പറയുന്നത് കന്ന്കാലി കൃഷിയും മൽസ്യ കൃഷിയും ഒക്കെയാണ് അപ്പോൾ നമ്മടെ നാട്ടിലൊരുപാട് പേര് കന്ന്കാലി കൃഷി ഒക്കെ നടത്തുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ഫാമുകളക്കെ നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ പുതിയ സാങ്കേതിക വിദ്യകളുടെ ഒക്കെ ഉള്ളൊരു ഉപയോഗം കൊണ്ട് നമക്ക് ഇപ്പോൾ ഈ നെൽകൃഷികൾ ഒക്കെ നമുക്ക് ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ച് കൊയ്യാനും കൊയ്തെടുക്കാനും അതുപോലെ നടാനൊക്കെ മെഷീൻസ് ഉണ്ടിപ്പോൾ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് നടീലൊക്കെ ചെയ്യാം അതുപോലെ ട്രാക്ടർലൊക്കെ നമക്ക് നെല്ല് കൊണ്ട് വന്ന് വീട്ടിൽ തട്ടുവൊക്കെ ചെയ്യാം അതൊക്കെ ഭയങ്കര എളുപ്പൊള്ളൊരു കാര്യമാണ് മറ്റേ നമ്മുടെ ആള് തന്നെ ഇരുന്ന് കൊയ്യണം അതൊക്കെ ഭയങ്കര ചിലവുള്ള കാര്യമാണ് അതുപോലെ നെല്ല് ഏറ്റി കടത്തി വീട്ടിലോട്ട് കൊണ്ടുവരണം അതൊക്കെ ചിലവ് കൂടുതലും ഭയങ്കര അദ്ധ്വാനമുള്ളൊരു കാര്യമാണ് ഇതിപ്പോൾ ഇങ്ങനുള്ള യന്ത്രങ്ങൾ വരുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം ലാഭ്യവും സമയം ലാഭവും ആരോഗ്യവും നമ്മുടെ ലാഭം കിട്ടും നമ്മുടെ എനർജിയും വേസ്റ്റ് ആവുന്നില്ല പിന്നേന്ന് പറയുന്നത് നല്ല സങ്കര ഇനത്തിൽപെട്ട നെൽ വിത്തുകള് കിട്ടും അതുപോലെ നല്ല സങ്കര ഇനത്തിൽ പെട്ട തെങ്ങും തൈകള് കുരുമുളക് തൈകള് വാഴ തൈകള് ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതൊക്കെ ഒരു വളരെ നല്ലൊരു ഇതായി തോന്നുന്നുണ്ട് നമ്മുടെ ഓരോ പുതിയ പുതിയ വളർച്ചകളാണ് നമുക്ക് കൃഷി ഭയങ്കര ലാഭമാക്കാൻ ഇതൊക്കെ സഹായിക്കും ഈ സങ്കര ഇനം വിത്തുകളൊക്കെ നമുക്കിപ്പോൾ കൃഷിയിൽ അത്യാവശ്യമായ ജലം വെള്ളമൊക്കെ നമുക്ക് മോട്ടർ ഉപയോഗിച്ചൊക്കെ അടിച്ചെടുക്കാൻ പറ്റും ഇപ്പം ഏതെങ്കിലും നല്ല വരൾച്ചകൾടെ സമയത്താണെങ്കിൽ കുറച്ച് ദൂരെ ഉള്ള ഒര് കിണറിൽനിന്നോ അല്ലെങ്കിൽ ഒരു കുളത്തിൽനിന്നോ ഒക്കെ നമക്ക് കൃഷി ഇടത്തിലോട്ട് മോട്ടർ അടിച്ച് വെള്ളം എത്തിക്കാൻ പറ്റും ഇതും നമ്മടെ സാങ്കേതിക വിദ്യയുടെ ഒരു പുതിയ കണ്ടുപിടിത്തങ്ങളാണ്